കർഷകരുടെ അവസ്ഥ എന്നുപറഞ്ഞുകഴിഞ്ഞാല് ഭയങ്കര പരിതാപകരമാണ് കാരണം ഒരൂ കർഷകന് അവരുടെ വിളവെട് പ്പുള്ള സമയത്താണെങ്കിലുണ്ടല്ലോ അവരുടെ കൃഷിയുടെ സമയത്താണെന്നുണ്ടെങ്കില് അവരുടെ കാലവസ്ഥയെ ആശ്രയിച്ചിട്ടാണ് വരുന്നത് ഇപ്പോള് മഴയുള്ള സമയമാണെന്നുണ്ടെങ്കില് അവിടെ അതായത് അവരുടെ വിളവെടുപ്പിനെ ബാധിക്കുന്നുണ്ട് പിന്നെ വിലയുടെ കാര്യമാണെന്നുണ്ടെങ്കിലും എല്ലാ സമയത്തും ഒരു നിശ്ചിത വില അവർക്കില്ല ഇപ്പോള് ഒരു വാഴ വെക്കുകയാണെങ്കില് തന്നെ അതിൻ്റെ കുല മാർക്കറ്റില് കൊണ്ടുപോയി വില്ക്കുന്ന സമയത്ത് പല സമയത്തും പല വിലകളായിരിക്കും അതവരെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും ഇപ്പോള് നെല്ല് ഒക്കെ ഓരോ സീസണല്ലേ നമ്മള് നമ്മുടെ പേരിലുള്ള ഫണ്ടും കാര്യങ്ങളെല്ലാം ഒരു സമയത്ത് അതില് ഇറക്കിയിട്ട് നമ്മള് കാലാവസ്ഥ ഇപ്പോള് മഴയാണ് ഫ്ളഡ് പിന്നെ ഓരോ നിപ്പ കൊറോണ അങ്ങനത്തതൊക്കെ സമയങ്ങളൊക്കെ വരുന്ന സമയത്ത് അതൊക്കെ അവരെ ഭയങ്കരമായിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അവരുടേത് വിളവെടുപ്പിനെ സംബന്ധിച്ചത് ഭയങ്കര പ്രശ്നമായിരിക്കും കാരണം അവർക്ക് അത് മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് സംബന്ധിച്ച് എന്താണ് അങ്ങനെയൊരു വിളവെടുക്കാൻ പറ്റാതെ വരുക പിന്നെ വേണ്ടത്ര രീതിയില് അതിന് വില കിട്ടാണ്ടിരിക്കുക അവരുടെ മുന്നില് ആത്മഹത്യ എന്നുള്ള ഒരു പോംവഴി മാത്രമേ അവര് മുന്നിൽ കാണുന്നുള്ളൂ അതുകൊണ്ടാവണം അവര് അങ്ങനെ ചെയ്യുന്നത് കാരണം ഇതിനെതിരെ നമ്മര് സർക്കാറിന്റെ കുറേ കാര്യങ്ങളോ പദ്ധതികളോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ഇടയില് ഇല്ല അവരെ ജീവിക്കാൻ അനുവദിക്കാനും അവർക്ക് കൃഷി മാത്രം മാർഗമായിട്ട് കാണുന്നവരുടെ ഇടയിലാണ് ഇങ്ങനൊരു പ്രശ്നം വരുന്നത് അവർക്ക് ജീവിക്കാന് ഇങ്ങനെ വേറെ ഒന്നുമില്ല ഇപ്പോള് വയസ്സായിട്ടും ഇന്നത്തെ കാലത്തിപ്പോള് ഒരുപാട് പേരൊന്നും കൃഷിയിലോട്ട് ഇറങ്ങുന്നില്ല പ്രായമായവരൊക്കെ പ്രായമായവരായിരിക്കും അപ്പോള് അവർക്ക് ജീവിക്കാനുള്ള മാർഗം അത് മാത്രമാണ് അപ്പോള് ഇങ്ങനൊക്കെ പോയിക്കഴിഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും